ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദി തന്നെയാണ് ഔദ്യോഗിക ഭാഷ കൂടുതല് സ്ഥലത്തും നമ്മുടെ ഈ ഹിന്ദി വേണമെന്നാണ് ഉള്ളത് ഹിന്ദിയാണ് കൂടുതലായിട്ടും നമ്മള് ഉപയോഗിക്കുന്നതും ഇപ്പൊ ഇത് ചെയ്യുന്നത് സാധാരണ ഹിന്ദി ഭാഷയാണ് സാധാരണ ആയിട്ട് ചെയ്യുന്നത് പിന്നെ മറ്റ് ചില ഭാഷകൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പുറത്തുള്ളൊരു ഭാഷയാണ് അത് ഇംഗ്ലീഷ് ആണ് പൊതുവെ ഉപയോഗിക്കുന്നത് അത് ഇപ്പൊ എല്ലാത്തിലും ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട് അത് ഇപ്പോ ഏതൊരു സ്റ്റേറ്റിലാണെങ്കിൽ തന്നെ ഇംഗ്ലീഷ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഹിന്ദിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ് പിന്നെ ഓരോ നാട്ടിലും ഓരോ ഭാഷകളായിരിക്കുമല്ലോ അതായത് കേരളത്തില് മലയാളം തമിഴ് നാട്ടില് തമിഴ് കർണാടകയിൽ കന്നഡ എന്നാണെങ്കിലും പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് ചില സ്ഥലത്തും ഈ കർണാടകയിലും തമിഴ്നാട്ടിലും ഹിന്ദി ഭാഷ നല്ലോണം ഉപയോഗിക്കും ഹിന്ദി ഭാഷ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് കോമൺ ആയിട്ട് പിന്നെ സാധാരണയായിട്ട് എനിക്ക് തോന്നുന്നത് കൂടുതലും യൂസ് ചെയ്യുന്നത് അതായത് കുറച്ച് കൂടി എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാര് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും കുറച്ച് കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് സാധാരണക്കാര് യൂസ് ചെയ്യുന്നത് കൂടുതലും സ്ഥലങ്ങളില് നോക്കിക്കഴിഞ്ഞാല് ഹിന്ദി തന്നെയായിരിക്കും